ഞാന് ജനിച്ചതും വളര്ന്നതുമെല്ലാം ചെറിയൊരു ഗ്രാമമായ മാങ്ങാട്ടുകരേലാണ് പക്ഷേ അവിടെ ഒരു ലൈബ്രറി ഇല്ല എന്നാലും അതിന്റെ അടുത്തുള്ള അങ്കമാലി ആൻഡ് സിറ്റിയില് ടൌണില്ത്തന്നെ ലൈവിൽസ് ലൈബ്രറികള് കുറെ ഉണ്ട് പൊതുവേ ഞാൻ ലൈബ്രറി പോവാണ് പുസ്തകം എടുക്കാറുള്ളത് എന്നാല് എനിക്കെന്തെങ്കിലും പുസ്തകങ്ങൾ കിട്ടീട്ടില്ലെങ്കില് ആവശ്യമുള്ള പുസ്കതകം കിട്ടീട്ടില്ലങ്കില് ഞാനത് ഓണ്ലൈന് വഴി ഓർഡർ ചെയ്ത് വാങ്ങിക്കാറുണ്ട് അതുകൂടാതെ എന്റെ സമയങ്ങളൊന്നും ഞാന് സെക്കൻടാന്ഡ് ഷോപ്പുകള് കണ്ടിട്ടില്ല അതുകൂടാതെ ഞാന് എപ്പോഴും ഫ്രെഷായിട്ടുള്ള ബുക്സ്സാണ് പ്രിഫെറ് ചെയ്യാൻ വായിക്കാനായിട്ട് അതെനിക്ക് കൂട്തല് പുതുമയും എന്റെതാണ് എനിക്കെന്തും അതിൽ നോട്ട് ചെയ്യാം എന്ന് ഉള്ളൊരു ചിന്തയും എനിക്കെപ്പോഴും തരാറുണ്ട് എന്റെ നാട്ടിൽ എപ്പോൾ ലൈബ്രറി വന്നാൽ ഞാന് സന്തോഷമാണെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്തിരുന്നാലും മാങ്ങാട്ടുകരയില് ലൈബ്രറി ഇല്ലാത്തതിന് നഷ്ടം തന്നെയാണ് വായിക്കുന്ന കുറേ പേർ ഞാന് അങ്കമാലി ടൗണ് ലൈബ്രറീ പോകുമ്പോൾ കാണാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടാത്ത കുറെ ബുക്ക് ഓണ്ലൈന് വഴി ഞാന് വാങ്ങിക്കാറുണ്ട് അവസാനമായി ഞാന് വായിച്ച ബുക്കാണ് ആൻടി കെയര് ഓഫ് ലെക്ഷ്മി അത്കൂടാതെ സെല്ഫ് ലവ്നെക്കുറിച്ചുള്ളൊരു പുസ്തകവും ഞാന് വായിച്ചിരുന്നു